കലയിലെയും കരകൗശലത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സോഷ്യൽ മീഡിയ വളരെയധികം സഹായിക്കാറുണ്ട് ചില കുട്ടികളുടെ പാട്ട് ഡാൻസ് എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും അതിന് ധാരാളം ലൈക്കും ഷെയറും എല്ലാം ലഭിക്കുകയും ചെയ്യുന്നു അതേപോലെതന്നെ കരകൗശല വസ്തുക്കൾ വിൽക്കപ്പെടാൻ ഉള്ള ഒരു മാർക്കറ്റ് പ്ലേസ് കൂടിയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്ന കര കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയും അതിനുള്ള ആൾക്കാ അത് വാങ്ങിക്കാനും വാങ്ങിക്കുന്നതിലൂടെ ഈ വ്യക്തികളെ സഹായിക്കുന്നതിനും സോഷ്യൽ മീഡിയ വളരെയധികം ഹേ സഹായിക്കുന്നു ഇവരുടെ പരസ്യങ്ങൾ നൽകുന്നതിനും അതായത് അവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനും എല്ലാം യു യൂട്യൂബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും വാഡ്സപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയെല്ലാം അതിന് ആവശ്യമായ പരസ്യങ്ങൾ നൽകുകയും അതൊരു മാർക്കറ്റ് പ്ലൈസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്